ആരാണു വിളിക്കുന്നത് അവിടെ എന്തൊക്കെ സ്ഥാനങ്ങളുണ്ട് എനിക്ക് ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കത്തേനും മതി ആ ഊണുമതി ബിരിയാണി മതി അഞ്ചു പേർക്കു വേണം അഞ്ച് അഞ്ച് ആ ചിക്കന് മതി

വിലയെത്രയായാലും കുഴപ്പമില്ല ഞാൻ തന്നോളാം പിന്നെ ആരുടെ കയ്യിലെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുത്തുവിട്ടിരുന്നെങ്കില് വലിയ ഉപകാരമായിരുന്നു വീടും ഒക്കെ അറിയാമല്ലോ ഞങ്ങളുടെ വീടും അതിൻ്റെ കോമ്പൗണ്ടുമൊക്കെ അറിയാമോ സ്ഥലം ആ

അതെ ആ ആ വഴിക്കാണ് അപ്പോള് ആ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് എത്ര മണിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനാ ആ പന്ത്രണ്ടര ഒരു മണിക്കകത്തായാലും മതി പന്ത്രണ്ടര ഒരു മണിക്കകത്തു മതി പിന്നെ ഒരു ഒരു കാര്യം അവിടെ വരുമ്പോള് ആ തന്നുവിട്ടിരുന്ന ആളോട് ഗേറ്റിന് അവിടെനിന്നു ഗേറ്റില്നിന്നൊന്ന് ബെല്ലടിക്കാൻ പറയണം ബെല്ലങ്ങ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത ഗേറ്റ് തുറന്നിട്ടേക്കാം അത് തൂണേലാ ബെല്ലിരക്കുന്നേ ചിലപ്പോള് സ്വിച്ച് മാറി വല്ലോം ബെല്ലടിക്കുകയാണെങ്കില് വരുമ്പോള് സുമ തന്നുവിട്ടതാണോ എന്നു ഞാൻ ചോദിക്കും ചോദിക്കും ആ ആ ആ ഓ ഓ വേണ്ട വേണ്ട വേറെ സ്പെഷ്യലായിട്ടൊന്നും വേണ്ട പിന്നെ കടി കടി കാപ്പിക്കെന്നാ ഉണ്ട് കടി കാപ്പിക്കെന്നാ ഉണ്ട്

ഞായറാഴച കുടുംബ കൂട്ടായ്മ ഉണ്ടായിരുന്നേ അപ്പോഴൊരു കാര്യം ചെയ്യൂ ഏത്തയ്ക്കാ അപ്പവും ഉഴുന്ന വടയും കൊടുത്ത് വിട്ടോളൂ ചിലപ്പോള് ഏത്തക്കാ പറ്റില്ലാത്തവര് ഉഴുന്ന വട കഴിച്ചോളും അങ്ങനെ ചെയ്യാമല്ലോ അപ്പോള് അതിനുള്ള അനുസരിച്ചുള്ളതു കൊടുത്തു വിട്ടാല് മതിയേ ഒരു ഏകദേശം വലിയ ആളൊന്നുമില്ല ഒരു ഇരുപത്തഞ്ചേത്തയ്ക്കാ അപ്പവും ഒരു ഒരു ഇരുപത്തഞ്ചേത്തയ്ക്കാ അപ്പവും ഒരു പത്തു പതിനഞ്ച് ഉഴുന്നുവടയും മതിയായിരിക്കും ഇച്ചിര കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്താളാം പൈസയൊക്കെ ഞാൻ ഓൾറെഡി തന്നോളാം ആ രണ്ടും രണ്ടും കൂടെ തരണം അതെ ബിരിയാണി വൈകുന്നേരമാണ് പ്രാർഥന നടത്തുന്നത് ആ വൈകുന്നേരം വൈകുന്നേരമാണ് മാത്രം മതി പി പിന്നെ പിന്നെ പിന്നെ ഒരു കാര്യം ഒരു കാര്യം വെക്കല്ലേ ചൂടോടെ തരണേ ചൂടോടെ തരണേ ചെറിയ ചൂടില്ലെങ്കില് എല്ലാവർക്കുമൊന്നും ഇഷ്ടപ്പെടുകേല ആ കുടിക്കാൻ കുടിക്കാൻ എങ്ങനെ കാപ്പിയുടെ കാര്യമെങ്ങനെയാണ് കാപ്പി ഞങ്ങളിടണോ അതോ കൊടുത്തയയ്ക്കാന് വല്ല സംവിധാനം ഉണ്ടോ അതേ അത് ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം പറയാം വിത്ത് വിത്ത് കൂടുതൽ പേര് ഒന്നെങ്കില് ഈ സൗകര്യം പോരാ രണ്ടും കൊടുത്തിട്ടാണു വിടുകയെങ്കില് കാപ്പിയും ചായയും കൊടുത്തുവിടാന് നിങ്ങള്ക്കു് സൗകര്യം ഉണ്ടെങ്കില് വിത്തും വിത്തൗട്ടും ചായയും കൊടുക്കണം കാപ്പിയും കൊടുത്തുവിടണം അതല്ല രണ്ടും ബുദ്ധിമുട്ടാണെങ്കില് ചായ തന്നെ വിത്തും വിത്തൗട്ടും കൊടുത്തു വിട്ടാല് മതി അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ സൗകര്യം പോലെ ആ ആ വേണം രണ്ട് പാട്ടുകാര്യം നമുക്ക് അറിയാൻ പറ്റില്ല ആ ശരി ആ ശരി എന്നാല് ശരി എന്നാല് വൈകുന്നേരം വൈകുന്നേരം എല്ലാം ചൂടോടെ എത്തിക്കുമല്ലോ ഓക്കെ ഓക്കെ ആ ശെരി ആ ശരി ഓക്കെ മതി മതി